ഇന്നത്തെ കാലഘട്ടത്തിൽ ഒഴി ഒഴിവുസമയം തന്നെ കിട്ടാറില്ല എന്നാലും ഒഴിവുസമയം കിട്ടുന്ന സമയത്ത് കൂടുതലാളുകളും മൊബൈൽ ഫോണിലാണ് കൂടുതല് യൂസെയ്യുന്നത് വിനോദത്തിന് പുറത്തു പോവുകയോ ചില കുറച്ച് ഭൂരിഭാഗത്തിലെ കുറച്ചു ആൾക്കാരെ പുറത്ത് എവിടെയെങ്കിലും കറങ്ങാൻ പോവുകയോ എന്തെങ്കിലും കടൽ കടൽ കാണാൻ പോവുകയോ ഇല്ലെങ്കില് ക്ലബ്ബുകളിൽ പോവുകയോ റെസ്റ്റോറൻറ്റിലോ ഷോപ്പിംഗ് മാളിൽ പോയി ഷോപ്പിംഗ് മാളിൽ പോയി പോയിട്ട് സമയം കളയുന്നവരൊക്കെ ഒരുപാടുണ്ട് ഒഴിവുസമയം എന്നുപറഞ്ഞാൽ നമുക്കൊന്ന് റസ്റ്റ് എടുക്കാൻ ഉള്ള സമയമാണ് ആ സമയത്ത് നമ്മൾ എവിടെയെങ്കിലും ഒക്കെന്ന് കറങ്ങാൻ ഒക്കെ പോകും ഫ്രണ്ട്സും ആയിട്ടൊന്ന് അടിച്ചുപൊളിക്കാൻ ഒക്കെ പോകും അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പോകുന്നവരും ഉണ്ട് ഇല്ലെങ്കിൽ പിന്നെ ഈ ക്ലബ്ബുകളിലും ബാറിലൊക്കെ പോകുന്നവരും ഉണ്ട് ഒഴിവുസമയം കിട്ടുമ്പോഴാണ് ചില ആളുകളും വലിയ ജോലി തിരക്കൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ബാറിൽ പോകുളളൂ അങ്ങനെ ബാർ പോകുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ പോകുകയൊക്കെ ചെയ്യും കൂടുതൽ ആളുകൾ പോകുന്നേന്ന് പറഞ്ഞാൽ കടലിൽ കടൽതീരത്ത് പോകുന്നവരുണ്ട് ഇല്ലാതെ പുറത്ത് എവിടെയെങ്കിലും വിനോദ സഞ്ചാരത്തിന് പോകുന്നവരൊക്കെ ഉണ്ട്